നല്ല മീൻ മുള്ളിൽ വെച്ചങ്കിൽ നല്ല ഇഷ്ടം അതിങ്ങനെ നമ്മൾ ഒന്ന് മുളക് അരക്കും അരച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി മുളക് അരച്ചിട്ട് പെരക്കിറ്റ് വാഴ ഇലയിൽ ചുറ്റീട്ട് ഫ്രീയാക്കും നല്ല എരിവും പുളിയെല്ലാം കൊണ്ടതായിരിക്കണം അപ്പം നല്ല ടേസ്റ്റല്ലെ അത് എനിക്ക് ഭയങ്കര ഇഷ്ടം അതുപോലെ തന്നെ ചിക്കന് കോഴി നല്ല മൊള്ളൽ വെച്ചങ്ക് കുരുമുളക് പൊടിയെല്ലാം ഇട്ടിട്ട് വെച്ചങ്കി അത് ഇഷ്ട്ടം അത് നമ്മൾ കുരുമുളക് പൊടിക്കും ഉള്ളി വെളുത്തുള്ളി പിന്നെ തക്കാളി പച്ചമുളക് അരിഞ്ഞിറ്റ് ഇതെല്ലാ ഒരു മസാലാക്കിറ്റ് കോഴി ഇടും കോഴി ഇട്ടിറ്റ് നല്ല കുരുമുളക് പൊടി എല്ലോം ഇട്ടിറ്റ് നന്നായിറ്റ് മുള്ളിൽ വെക്കും നല്ല ഇഷ്ട്ടാന്ന് എനിക്ക് പിന്നെ അതുപോലെ പാൽപായസം ഇഷ്ട്ടം അത് ഞാൻ ഉണ്ടാക്കും പാൽപ്പായസം ഉണ്ടാക്കും അതിന് നെയ്യ് മുന്തിരി അണ്ടിപ്പരിപ്പ് എല്ലാ ഇടും നന്ന നൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അത് ഇഷ്ട്ടം അതുപോലെ ഫ്രൈഡ് റൈസ് നെയ്യ് ചോറ് ഞാൻ ഉണ്ടാക്കും അതും എനിക്ക് ഭയങ്കര ഇഷ്ട്ടം മസാലദോശ അത് ഇഷ്ട്ടം പൊറോട്ട മുട്ടക്കറി അത് ഇഷ്ട്ടം പിന്നെ പത്തല് ഇഷ്ട്ടം പിന്നെ അട ഇഷ്ട്ടം അട നല്ല അരി അരച്ചിട്ട് തേങ്ങ നല്ലോണം ഇട്ടിറ്റ് വായ ഇലേൽ പരത്തീറ്റ് വെച്ചിറ്റ് വേവിച്ചിറ്റ് തിന്നും അത് നല്ല ടേസ്റ്റാന്ന് അത് എനിക്ക് ഭയങ്കര ഇഷ്ട്ടം അത്പോലെ മീൻകറി ഇഷ്ട്ടം പിന്നെ മുത്തല ചട്നി ചമ്മന്തി അത് ഇഷ്ട്ടം മുത്തല നമ്മളെ വീട്ടിലിണ്ടാവും അത് പറിച്ചിറ്റ് കഴുകീറ്റ് തേങ്ങ പച്ചമുളക് ഉപ്പ് പുളി ഈ ഇല അത് ഇട്ടിറ്റ് ചമ്മന്തി പോലരച്ചിറ്റ് അത് കഞ്ഞിക്ക് കൂട്ടാന് ഭയങ്കര ഇഷ്ടം ടേസ്റ്റാന്ന് അത് എനിക്ക് ഭയങ്കര ഇഷ്ട്ടം അതുപോലെ വാഴ കൂമ്പ് വാഴ കൂമ്പ് പൊളിച്ചിറ്റ് അതിനകത്തെ എരച്ചി മുറിച്ചിറ്റ് അതിനെ വെറവാക്കും അതും എനിക്ക് ഭയങ്കര ഇഷ്ട്ടം അതുപോലെ കേബേജ് കേബേജ് ഇട്ടിറ്റ് ഒര് ദോശ ഉണ്ടാക്കും അരിയെല്ലാം കൂടി അരച്ചിറ്റ് മുളക് കേബേജ് തേങ്ങ ഉപ്പ് അങ്ങനെ അതെല്ലാം ഇട്ടിറ്റ് അരച്ചിറ്റ് കേബേജ് മുറിച്ചിട്ടിറ്റ് ദോശ ഉണ്ടാക്കും അതും നല്ല ടേസ്റ്റാന്ന് അത് എനിക്ക് ഭയങ്കര ഇഷ്ട്ടം അതുപോലെ സീറ റവേന കൊണ്ടുണ്ടാക്കുന്ന റവ കൂട്ടിറ്റ് പഞ്ചസാര മുന്തിരി അണ്ടിപ്പരിപ്പ് ഇട്ടിറ്റ് സീറ ഉണ്ടാക്കും അത് എനിക്ക് ഭയങ്കര ഇഷ്ട്ടം പിന്നെ വേറെ വേറെ കടുമ്പ് തേങ്ങ വെല്ലം ഇട്ടിറ്റ് അത് ഇഷ്ട്ടം അങ്ങനെ ഉണ്ടാക്കിറ്റ് തിന്നും പിന്നെ അവിൽ കൊഴച്ചിട്ട് ത് അവിൽ തേങ്ങ പഞ്ചസാര ഉള്ളി എല്ലാം മുറിച്ചിട്ടിറ്റ് അവിൽ കൊഴക്കും അതും കയിക്കാൻ നല്ല ടേസ്റ്റാന്ന് അത് എനിക്ക് ഭയങ്കര ഇഷ്ട്ടം വേറെ അതുപോലെ ഇഞ്ചി മാങ്ങ പച്ചമുളക് തേങ്ങ ഇട്ട ചമ്മന്തി അത് നല്ല രസാന്ന് അത് ഞാൻ ഉണ്ടാക്കും അത് കഞ്ഞീരൊപ്പരം കഴിക്കാൻ നല്ല ടേസ്റ്റ് അത് എനിക്ക് ഇഷ്ട്ടമാണ് വേറെ അതുപോലെ ചക്ക ചക്ക വറുവാക്കും ചക്ക മുറിച്ചിറ്റ് പിന്നെ മുളക് തേങ്ങെല്ലാം ഇട്ടിറ്റ് ചക്ക വറവാക്കി കഴിക്കും അത് ഭയങ്കര ഇഷ്ട്ടാന്ന് ചക്കേൽ അപ്പം ഉണ്ടാക്കും അതും ഇഷ്ട്ടമാണ് അതുപോലെ ചക്കര പപ്പടം ഉണ്ടാക്കും അതും എനിക്ക് ഭയങ്കര ഇഷ്ട്ടം ചക്ക വേയിച്ചിറ്റ് പപ്പടം ഉണ്ടാക്കും അതും എനിക്ക് ഇഷ്ട്ടന്നെ അതുപോലെ കേങ്ങ് പപ്പടം ഉണ്ടാക്കും അത് നല്ല മധുരം അതും നല്ല ഇഷ്ട്ടാന്ന് അത്പോലെ മാങ്ങ കറി വെക്കും പഴുത്ത മാങ്ങ എങ്കിൽ അത് വറച്ചിറ്റ് അതിനെ തൊല്ലിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിറ്റ് അതിന് തേങ്ങ മുളക് ഉപ്പ് പുലി ബെല്ലം എല്ലോം ഇട്ടിറ്റ് അരച്ചിറ്റ് മാങ്ങ കറി അത് നല്ല രസാന്ന് അത് ചോറിൻ്റെ ഒക്കെ കഴിക്കാൻ ഭയങ്കരം ടേസ്റ്റോടെ കഴിക്കാം നല്ല ടേസ്റ്റൊൻഡ് അത് ഇഷ്ട്ടന്നെ പിന്നെ അതുപോലന്നെ കോഴി തേങ്ങയെല്ലാം അരച്ച് കൂട്ടിറ്റ് കറി വെക്കും അത് നല്ല രസവുണ്ടാവും അതുപോലെ സാമ്പാറ് സാമ്പാറാക്കും സാമ്പാറും മുരിങ്ങക്കുമ്പ് വെള്ളരിക്ക മത്തങ്ങാ തക്കാളി ഉരുളക്കിഴങ്ങ് എല്ലാ എല്ലാ പച്ചക്കറികളും ഇട്ടിറ്റ് ഒരു കറി വെച്ചാൽ അതിൻ്റെ സാമ്പാറ് അതു നല്ല ടെസ്റ്റോടെ എനിക്ക് ഇഷ്ട്ടം